എടാ ഞാൻ നിങ്ങളെ രണ്ട് ദിവസം മുൻപ് വിളിച്ചിട്ട് ഉണ്ടായിരുന്നില്ലേ എന്താ പറ്റിയത് ആ അത് തന്നെ നമ്മൾ വീടിൻ്റെ ഒരു പുതുക്കാനുള്ള പരുപാടി ആയിരുന്നു ആ അതു തന്നെ ഉദേശിച്ചത് അത് എന്താ പറയുക ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് അല്ല ആ മുന്നൂ മൂന്നുറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ആ ശരി ആയിരുന്നു അത് ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ മുമ്പിലുള്ള റൂം അത് മാത്രം ഒന്നു പുതുക്കാമെന്ന് പറഞ്ഞു നിങ്ങൾ പറയുമ്പോഴാണ് ആലോചിച്ചത് തറവാട് ഒന്ന് എല്ലാം കൂടെ പുതുകുമ്പോൾ ഒരു ഭംഗി കാണും അല്ലേ അതിപ്പോൾ എന്നാ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് തന്നെ ഉണ്ട് അത് എല്ലാം കൂടെ ഒന്ന് റെഡി ആകുവാണെങ്കിൽ നന്നായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് എന്താ പറയുക അതിൻ്റെ ഒരു മോഡൽ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് പുതുക്കണം അതിൻ്റെ വയറിങ്ങും പിന്നെ കുറച്ചും കൂടെ സംഭവങ്ങൾ ഒക്കെ ചെയ്യണം കിച്ചൻ കുറച്ചും കൂടെ ഒന്ന് ആ അത് ആയിരിക്കും ആ നമുക്ക് ഒരു പഴയതും വെച്ചിട്ട് പുതിയ ആ ശരിയാണ് നിങ്ങൾ പറഞ്ഞത് നല്ലത് നല്ല ഒരു രീതിയാണ് ആ അതുതന്നെ ഉദ്ദേശിക്കണത് ബഡ്ജറ്റ് ഒരു രണ്ട് രണ്ട് മൂന്ന് ലക്ഷത്തിന് ഉള്ളിൽ എല്ലാം കൂടെ ഒന്ന് റെ റെഡി ആകണം എന്നാണ് ഉദ്ദേശിക്കണത് പക്ഷേ നമുക്ക് നോക്കാം ആ എന്നാ നമുക്ക് നോക്കാം പത്ത് ആ ശരി ആ ശരിയാണ് നമുക്ക് ഓരോ റൂമായിട്ട് ആ ശരിയാണ് അങ്ങനെ നോക്കാം ആ ശരിയാണ് ആ മനസിലായി മനസിലായി ഞാൻ വിചാരിച്ചു ആ ശരിയാണ് ആ അപ്പോൾ നമുക്ക് ഒരു സ്ഥലം ഇരിക്കാൻ ഒരു സ്ഥലം കാണുമല്ലേ ആദ്യം തന്നെ ശരി അങ്ങനെ തന്നെ നമുക്ക് നോക്കാം ആ ഞാൻ അവിടെ നിൽക്കുന്നുണ്ടാവും ഓക്കെ ശരി അപ്പോൾ